ഇന്നത്തെ കാലത്ത് നമ്മുടെ യുവജനങ്ങൾക്കിടയിലും മധ്യവയസ്ക്കർക്കിടയിലും കൂടുതലായിട്ടുണ്ടായിപ്പെടുന്നത് ഒരു ആപ്പാണ് വാട്സ്ആപ്പ് ഇത് നമുക്ക് അങ്ങോട്ടുമിങ്ങോട്ടും പല കാര്യങ്ങളും പെട്ടെന്നുതന്നെ ഷെയർ ചെയ്യാനും സംസാരിക്കാനുമൊക്കെ പറ്റും ഇതേപോലെത്തന്നെ പല ആപ്പുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇത്ര പോപ്പുലറായിട്ടുള്ള ഒരു ആപ്പ് വേറെയില്ല സ്മാർട്ട് ഫോണുകളിൽ നമുക്ക് ഇന്ന് ഭയങ്കര അഡിക്ടറ്റീവാണ് നമ്മൾ ഇതില് ചില കാര്യങ്ങൾ ന നമ്മുടെ പേർസണൽ ലൈഫ് സ്വകാര്യജീവിതത്തെ കൂടെയാ ബാധിക്കുക നമ്മുടെ കണ്ണിൻ്റെ കണ്ണിനും ആരോഗ്യപ്രശ്നങ്ങളും ഈ ഇത് കാരണമാകാം ഗുണങ്ങളെന്നു പറയാൻ ഇത് ഈ ഫോൺ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ എളുപ്പമാക്കുന്നു കുറച്ചൂകൂടി സുഗമമാക്കുന്നു സ്പീഡ് കൂട്ടുന്നു നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ പെട്ടെന്നുതന്നെ പറ്റുന്നു